നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടില് പല വൈദ്യങ്ങളുമുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാല് മുടികൊഴിച്ചില് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇതിനൊരു പരമാവധി നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഓരോ ചേരുവകൾ ചേർത്തിട്ട് തന്നെ നമുക്കിത് പരമാവധി കുറയ്ക്കാൻ പറ്റും ഇപ്പോള് നാട്ടിലുള്ളത് ഇപ്പോള് ചെമ്പരത്തിത്താളി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കില് ചെമ്പരത്തി അരച്ച് അതിൻ്റെ നീരെടുത്ത് തലയിൽ തേയ്ക്കുകയാണെന്നുണ്ടെങ്കില് തലയ്ക്ക് നല്ലയൊരു കൂളിങ്ങും കാര്യങ്ങളും എല്ലാം കിട്ടും മുടികൊഴിച്ചിലും ഒരു പരമാവധി കുറയുന്നതാണ് അതുപോലെ തന്നെ ഈ വലിയ ഉള്ളി വലിയ ഉള്ളിയും പിന്നെ ഈ കറിവേപ്പിലയും അല്ലെങ്കില് ആര്യവേപ്പോ ആര്യവേപ്പിൻ്റെ ഇലയോ ഇതൊക്കെയെടുത്ത് അരച്ച് അതിൻ്റെ നീരെടുത്ത് തലയില് കുറച്ചുനേരം തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കില് അതും ഒരുപാട് മുടികൊഴിച്ചിലിനും കാര്യങ്ങൾക്കുമൊക്കെ പരമാവധി കുറയും അതുപോലെയാണ് നമ്മുടെ കറ്റാര്വാഴ കറ്റാര്വാഴയുടെ ജെല് അല്ലെങ്കില് കറ്റാര്വാഴയിട്ട് കാച്ചിയ എണ്ണ അത് ആ എണ്ണ തലയില് തേച്ചുപിടിപ്പിച്ച് കുറച്ചുനേരം കഴിഞ്ഞ് കഴുകിക്കളയുകയാണെന്നുണ്ടെങ്കിലും തലയ്ക്ക് നല്ലയൊരു സുഖവും കാര്യങ്ങളുമുണ്ടായിരിക്കുന്നതാണ് ഇത് പരമാവധി നമ്മുടെ മുടികൊഴിച്ചിലും മുടി സംരക്ഷിക്കാനുമൊക്കെ ഏറ്റവും ബെറ്ററായിട്ടുള്ളതാണ് ഈ കറ്റാർവാഴയൊക്കെ യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമുക്കിവിടെ നാട്ടിലുള്ള വൈദ്യങ്ങള്